അതെയല്ലോ ഇത് ആരാണ് വിളിക്കുന്നത് എന്താണ് കേള്ക്കുന്നില്ലല്ലോ ആ ഓക്കേ ഓക്കേ എവിടെയാണ് താമസിക്കുന്നത് തോപ്രാംകുടിയിലാണോ ആ ഓക്കേ ഓക്കേ എന്തായിരുന്നു മോളെ ആ ഉണ്ടല്ലോ കിലോയ്ക്ക് എഴുന്നൂറ് രൂപയാണ് മോളെ അതിന് ആയിരമാകും അതിന് എഴുന്നൂറ്റിയമ്പത് ഡെലിവറി ചാർജ് അമ്പത് രൂപയാണ് നമ്മള് വാങ്ങിക്കുന്നത് ആ എന്നത്തേക്കാണ് മോളെ വേണ്ടത് ഏത് കേക്കാണ് വേണ്ടത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണോ റെഡ് വെൽവറ്റൊക്കെ നല്ലതല്ലെ നല്ല ക്രീം കേക്കൊക്കെയുണ്ട് നല്ല അടിപൊളി അതൊക്കെ വാങ്ങിക്ക് ഹാ ആ മതിയോ ഹ ഹാ എപ്പോഴത്തേക്കാണ് എത്തിക്കേണ്ടത് ഓകേ ഓക്കേ അതിൽ എന്തെങ്കിലും എഴുതണമോ ഓക്കേ ആ എന്നാല് അരവിന്ദ് ബേക്കറി അഭിനന്ദ് ബേക്കറിയല്ലെ ആ തോപ്രാംകുടി ആ ആ തിരിയുന്നിടത്ത് സെൻട്രൽ ജംഗ്ഷനില് അല്ലെ ആ ഗൂഗിൽ പേ ചെയ്താല് മതി ഡെലിവറി ചാർജ് കൂട്ടി ചെയ്യണം

എഴുന്നൂറ്റിയമ്പത് ആ സോറി സോറി ആ ഓക്കേ ഓക്കേ ആ എത്തിച്ചേക്കാം മ് പേടിക്കേണ്ട കേട്ടോ മ് ആ ശരി ആ ഓക്കേ താങ്ക് യൂ